ഉണ്ട് റേഡിയോയിൽ വാർത്തകൾ കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമം എന്നു പറയുന്നത് ലോക കാര്യങ്ങൾ അറിയാനും മറ്റുമായിട്ട് ഉപയോയിച്ചിരുന്നത് റേഡിയോ ആണ് രാവിലത്തെ പ്രാദേശിക വാർത്തകൾ അത് കഴിഞ്ഞിട്ടുള്ള ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ പിന്നെ ഉച്ചയ്ക്കത്തെ വാർത്ത വൈകിയിട്ടത്തെ വാർത്ത ഇങ്ങനെ ഉള്ള വാർത്തകളിലൂടെയാണ് ലോകത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം അന്ന് ഞങ്ങളറിഞ്ഞിരുന്നത് അത് വളരെ നല്ലൊരു രീതിയായിരുന്നു ആ റേഡിയോയുടെ ആ ഒരു പ്രവർത്തനം റേഡിയോ നല്ല ഒരു മാധ്യമമായിരുന്നു അത് നമുക്ക് വളരെ ഇഷ്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ ആ വാർത്തകളൊക്കെ ഞങ്ങൾ ആ വാർത്തയൊക്കെ ഞങ്ങൾ ഈ റേഡിയോയിൽ കൂടിയാണ് അറിഞ്ഞത് അങ്ങനെയുള്ള വാർത്തകളെല്ലാം വേഗം റേഡിയോ വഴിയാണ് അറിഞ്ഞത് റേഡിയോ നല്ലൊരു മാധ്യമമാണ് പിന്നെ ചാനലുകൾ ചാനല് പല ചാനലുകളും കാണാറുണ്ട് ഏഷ്യാനെറ്റ് കാണാറുണ്ട് മാതൃഭൂമി കാണാറുണ്ട് മലയാള മനോരമ ചാനല് കാണാറുണ്ട് ചാനലുകളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വാർത്തകൾ ചിലർ സത്യസന്ധമായിട്ട് പറയും അതേ വാർത്ത തന്നെ മറ്റൊരു ചാനല് പറയുമ്പോൾ അത് കുറച്ചുകൂടി വളച്ചൊടിച്ച് അതിൻ്റെ ആധികാരികതയോ അല്ലെങ്കിലതിൻ്റെ വിശ്വാസ്യതയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോവാറുണ്ട് എന്നാലും ഏഷ്യാനെറ്റ് മലയാള മനോരമ ചാനലൊക്കെ വലിയ ഒരു ഇല്ലാതെ തന്നെ വളരെ മാന്യമായിട്ട് സത്യസന്ധമായിട്ട് വാർത്തകൾ ചെയ്യുന്നുണ്ട് എന്നാൽ ചുരുക്കം ചില ചാനലുകൾ ഈ വാർത്തകളെ വളച്ചൊടിച്ച് എന്താ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് വാർത്തകൾ വായിക്കും കൊണ്ടുപോവുന്നുണ്ട് ഒരു വാർത്ത നമ്മൾ ഒരു ചാനലിൽ കാണുമ്പോൾ അതേ വാർത്തതന്നെ മറ്റൊരു ചാനല് കാണുമ്പോൾ വ്യത്യസ്ഥമായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചില ന്യൂനതകളുണ്ട് എന്നാലും ഈ ചാനലുകളിലെ വാർത്തകൾ വളരെ ഗുണകരമാണ് എല്ലാ ചാനലും കാണാറുണ്ട് ചാനലുകളെക്കുറിച്ച് നല്ല ഒരു പരിധിവരെ നല്ല അഭിപ്രായമാണ് പിന്നെ ചില അവതാരകരുടെ ആ ഒരു രീതികളും കാര്യങ്ങളുമൊക്കെ വെച്ചു നോക്കുമ്പോൾ ചില ചില അവതാരകരെ നമുക്കിഷ്ടമാണ് ഏഷ്യനെറ്റിലായാലും മാതൃഭൂമിയിലായാലും റിപ്പോർട്ടർ ചാനലിലായാലും ഏഷ്യാനെറ്റിലായാലും ഒക്കെ വളരെ നല്ല രീതിയിൽ വാർത്തകൾ കൈകാര്യം ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന അവതാരകരുണ്ട് അതെല്ലാം വളരെ നല്ല നല്ല കാര്യങ്ങളാണ് പിന്നെ ഒരു വരുതിവരെ ഇന്നത്തെ ഈ ലോകം ഈ ആധുനിക ലോകത്ത് ഈ മാധ്യമങ്ങളുടെ ചാനലുകളുടെ ഒരു പ്രവർത്തനം വളരെ നല്ലതാണ് കാരണം എന്തെങ്കിലുമൊരു സംഭവമുണ്ടായാൽ അത് നിമിഷങ്ങൾക്കകം മനുഷ്യൻ്റെ മറ്റു മനുഷ്യരിലെത്തിക്കുന്ന അതായത് പൊതു ജനങ്ങളിലെത്തിക്കുന്ന ഒരു രീതിയുണ്ട് അത് വളരെ ആ സ്ലാഹനീയമാണ് വളരെ നല്ല രീതിയിൽ തന്നെ അവർക്കത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഓരോ ചാനലും മത്സരിച്ചാണ് ഓരോ വാർത്തകളും പെട്ടെന്ന് പെട്ടെന്ന് ആ മനുഷ്യരിലെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ് അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവരത് നടത്തുന്നുണ്ട് എല്ലാ ചാനലുകളും വളരെ നല്ലതാണ് അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്